മലയാള ഭാഷ വന്നിരിക്കുന്ന മാറ്റം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവരും മലയാളം ലേൺ ചെയ്യാൻ തുടങ്ങി ഇംഗ്ലീഷ് പോലെ തന്നെ ഒരു വോൾഡ് വൈഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം മാറുന്നുണ്ട് ഇപ്പം ഇംഗ്ലീഷ് എന്നായിക്കോട്ടെ അവർ വരുന്ന സായിപ്പ് മദാമ്മയും ആയിക്കോട്ടെ അവരൊക്കെ മലയാളം ലേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് തന്നെയാണ് മലയാളം ഒരു ശ്രേഷ്ഠ ഭാഷ പിദവിയിലേക്ക് മാറിയപ്പോൾ അതുപോലെ തന്നെ മലയാള ഭാഷ ഉപയോഗിച്ചു മലയാള സാഹിത്യങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ രചനകളും മലയാളമാക്കി തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് തന്നെ വലിയ മലയാള ഭാഷയ്ക്ക് വന്ന ഒരു മാറ്റമാണ് അപ്പം ഒരു കുഞ്ഞു കുട്ടി ജനിക്കുന്ന അന്ന് മുതൽ ആ അവർ പഠിക്കുന്നതിൽ ഒരു വിഷയമായി മലയാളം മാറുന്നുണ്ട് അത് ഇപ്പം ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ എല്ലാത്തിലും മലയാളം ഉണ്ട് അങ്ങനെയാണ് ഇപ്പം മലയാളത്തിന് കാര്യമായിട്ട് വന്നിട്ട് മാറ്റങ്ങളൊക്കെ അധികമാണ് ഇപ്പം ഒരു സാഹിത്യ രചന ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലുമായിക്കോട്ടെ അതിൽ ഇപ്പം ഇംഗ്ലീഷിൽ എഴുതിയതായിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദിയിൽ ആയിക്കോട്ടെ അതായത് തർജമ എന്തായാലും മലയാളത്തിൽ ഇപ്പം സിനിമ മോഹികളായിക്കോട്ടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ ഒന്നെങ്കിൽ പോലും അത് മറ്റേ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്നിൽ ഇറങ്ങിയത് നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ മലയാള ഭാഷയ്ക്ക് വലിയ ഒരു വികാസമാണ് അതാണ് ഇപ്പം നമ്മൾ കാലക്രമേണ ഉള്ളതിനേക്കാളും ഒരുപാട് മാറിയിട്ടുണ്ട് മലയാള ഭാഷ